കോട്ടയം ജില്ലയിലെ കാലാവസ്ഥ ഒരു ഇടകലർന്ന കാലാവസ്ഥയാണ് ഞാൻ താപനില കൂടിയും കുറഞ്ഞും നിൽക്കുന്നു ശക്തമായ മഴയും എന്നാൽ തീരെ ചാറ്റൽ മഴകളും സംഭവിക്കുന്നുണ്ട് എല്ലാ കാലാവസ്ഥയും ഇവിടെയുണ്ട് എല്ലാ കാലാവസ്ഥയും അഭിമുഖീകരിക്കുന്നുണ്ട് ഈ കഠിനമായ വേനലനുഭവിച്ചു ഏതാണ്ട് നാൽപ്പത് സെൻറ്റിഗ്രയ്ഡ് ചൂട് അതുപോലെ തന്നെ വലിയ വെള്ളപൊക്കം ഒത്തിരി ആളുകള് തങ്ങളുടേതായ താമസ സ്ഥലങ്ങള് ഉപേക്ഷിച്ച് ക്യാമ്പ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന കാ അത് നമുക്ക് നേരിടാൻ സാധിച്ചു കഠിനമായ ശൈത്യകാലം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഒത്തിരി ആരോഗ്യസ്ഥിതിയെ ഒരുപാട് മോശപ്പെടുത്തുന്ന കഠിനമായ ശ നമ്മുടെ ദേശത്തിന് അനുയോജ്യമല്ലാത്ത ഒന്നായതുകൊണ്ട് ഒത്തിരി നമ്മുടെ ജീവിതത്തെ കൂടുതല് മാറ്റി മറിക്കാനിടയായിട്ടുണ്ട് അത് പുറത്തോട്ടുള്ള നമ്മുടെ ഇറങ്ങി സഞ്ചാരത്തിന് ജോലിക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് ആരോഗ്യസ്ഥിതി മോശപ്പെടാനായിട്ട് ഈ ഒരു കാലാവസ്ഥ നമുക്ക് സഹായകമായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രായവുള്ളവരേ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് കുഞ്ഞു കുട്ടികളേറെ അത് വിഷമിപ്പിക്കാറുണ്ട് നല്ലയൊരു കുടുംബാന്തരീക്ഷം ആയിട്ടിരിക്കണമെങ്കില് അവരുടെ ആരോഗ്യം നല്ല മെച്ചമാണ് എല്ലാവരുടേയും ആരോഗ്യം ഒന്നുപോലെ മെച്ചമായിരിക്കില്ല അപ്പോൾ ചിലർക്ക് ശ് ശൈത്യത്തെ നേരിടാൻ പറ്റുകയില്ല അതിനുള്ള സജ്ജീകരണങ്ങള് സാധാരണ മനുഷ്യരിൽ ചിലപ്പം കാണുകയില്ല അല്ലേല് അതിനുള്ള ഭക്ഷണത്തെ അതിനെ ചെറുക്കുവാനുള്ള ഭക്ഷണം കഴിക്കുവാൻ എല്ലാവർക്കും പറ്റുകയില്ല അപ്പോൾ അങ്ങനെ വരുമ്പഴത്തേക്ക് അത് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുന്നതിനും കൂടുതല് സാമ്പത്തിക ബാധ്യതകളുണ്ടാകുവാനുമൊക്കെ ഇടയായിട്ടുണ്ട് കാലാവസ്ഥ കാലാവസ്ഥ നമുക്ക് ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായിരുന്ന അതി ശൈത്യമായ അല്ല അതി ശക്തമായിട്ടുള്ള മഴ മൂലം ഒരുപാട് ബന്ധ ദുരിതങ്ങള് ആളുകള് അനുഭവിച്ച് കാണുവാൻ സാധിച്ചിട്ടുണ്ട് സ്വന്തം പുരയിടത്തിൽ നിന്നും വാസ സ്ഥലത്തു നിന്നും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിന് മറ്റുള്ളവരുമായിട്ടുള്ള മ മറ്റുള്ളിടത് പോയി നമ്മള് വീട്ടിലേക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് നമ്മുടെ കുടുംബത്തെ നിലനിർത്താനുള്ള ജോലി ചെയ്യുന്നതിന് ഒക്കെ ഒത്തിരി തടസ്സം സൃഷ്ടിച്ചതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാടാളുകൾക്ക് തങ്ങളുടെ വീടുകളോ ഉപേക്ഷിക്കപ്പെടെണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലതന്നെ വേ ചു വെ ശി ഭ അതിഭയങ്കരമായ ചൂടില് മനുഷ്യന് വെള്ളം നല്ല ശുദ്ധ ജല ലഭ്യത നഷ്ടപ്പെട്ട് അവരുടെ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടാൻ സാധിച്ചു അതുപോലതന്നെ നമ്മുടെ കൃഷി കൃഷികളെല്ലാം നശിച്ചു പോവുന്നതായിട്ട് കൃഷിക്ക് വേണ്ട അത്രയും ആയിട്ടുള്ള ജല സംവേ സ സേചനം നടത്താൻ പറ്റാതായത് നാശം വന്നതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ സമയത്തെ അതിശക്തമായ വേനല് മനുഷ്യൻ്റെ ശരീരത്തിന് ഒരുപാട് ആഘാതങ്ങളേപ്പിച്ചു സൂര്യതാപം ഏറ്റ് ഒത്തിരിയാളുകൾക്ക് രോഗമുണ്ടായി ഒരുപാടാളുകള് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട ഒര് അവസ്ഥ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ അവർക്ക് ശരീരത്തിന് ഷ് തളർച്ചയുണ്ടാവുന്നത് ക്ഷീണമുണ്ടാവുന്നത് അതുപോലെതന്നെ ജോലി ചെയ്യാൻ പാടിൽ മേലാത്തതായിട്ടുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം മൂന്ന് മണിക്കുള്ളിലും ജനങ്ങളൊരു കാരണവശാലും പുറത്തിറങ്ങാതെ ഉണ്ടായൊരു കാലാവസ്ഥ